ആ ഹലോ സാർ ഞങ്ങളെയിപ്പം ഞങ്ങളുടെ ആ വിലാസം ഒന്ന് ചേർത്തേക്കണം കാരണം ഞങ്ങൾ ഇപ്പം അവിടെ നിന്നു മാറിയാണ് താമസിക്കുന്നത് എൻ്റെ വിലാസമെന്നു പറയുന്നത് എൻ്റെ പേര് ആനിമ കിഴക്കെമുണ്ടകം ചമ്പക്കുളം ചമ്പക്കുളം എന്നുള്ളതാണേ അപ്പോൾ അവിടേക്ക് ഒന്ന് ചേർക്കണം കാരണം ഞങ്ങൾ ഭക്ഷണമൊക്കെ ഞങ്ങൾ ഇവിടെ ഹോട്ടലിൽ നിന്ന് ഓഡറ് ചെയ്യുമ്പോഴേക്ക് ഞങ്ങൾക്ക് കറക്ടായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങളെ നേരത്തെ വിലാസം ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഇപ്പം അവിടെ നിന്ന് ഇച്ചിരി അങ്ങോട്ട് മാറിയാണ് താമസിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ ഓഡറ് ചെയ്യുമ്പോഴേക്ക് ഞങ്ങൾക്ക് കറക്ടായിട്ടൊക്കെ അവിടെ എത്തുന്നതിനു വേണ്ടിയിട്ടാണെങ്കിൽ ആ അപ്പം ഞങ്ങളുടെ ഈ അഡ്രസ്സും കൂടെ ഒന്ന് ചേർക്കുകയായിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു